പലതരത്തിലുള്ള ഫോണുകളാണ് ഇന്നാളുകളിൽ ഉപയോഗിച്ച് കാണുന്നത് അതിൽ കൂടുതലായിട്ടും സ്മാർട്ട് ഫോണുകളിൽ വരുന്നത് വിവോ ഓപ്പോ സാംസങ്ങ് മുതലായ ഫോണുകളാണ് പിന്നീട് റെഡ്മി മുതലായ ഫോണുകളൊക്കെ ഉപയോഗിച്ചു കാണുന്നുണ്ട് അതിൽ സാംസങ്ങ് കുറച്ചൊക്കെ ഹാങാ ഹാങ്ങാവുന്നുണ്ടെങ്കിൽ പോലും ഫോൺ ഇപ്പം വരുന്ന പുതിയ തരം ഫോണുകൾ നല്ല രീതിക്ക് മാർക്കറ്റിൽ ഇപ്പം വിറ്റ് പോകുന്നുണ്ടെന്നാണ് നിഗമനം പിന്നീട് ബാക്കി ഒ ഉള്ളവ വിവോ ഓപ്പോ പോലെയുള്ള ഫോണുകളും അത്യാവശ്യം ആളുകൾ എടുക്കാൻ നല്ല രീതിയിൽ സാധ്യതയുള്ള ഫോണുകളാണ് കൂടുതലായും ആളുകൾ ചൂസ് ചൂസ് ചെയ്യുന്നത്

ആളുകൾ നോക്കുന്നത് അതിൻ്റെ ഫൈവ് ജി സപ്പോർട്ടിങ്ങാണോ അങ്ങനെയുള്ളൊരു ഒരു രീതിയിലാണ് ഇന്നാളുകൾ ഫോണുകൾ ഫോണുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് എൻ്റെ എൻ്റെ വിളിക്കാൻ തന്ന ഫോണ് വിവോ വൈ നയൻറ്റി ത്രീയുടെ ഫോണാണ് അതിലും ഏറെക്കുറേ ഇതു പോലെ നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് അപ്ഡേറ്റ് ഔട്ട്ഡേറ്റടായിട്ടുള്ള ഫോണായത് കൊണ്ടു തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് സപ്പോർട്ടാകാതെ വരുന്നുണ്ട് ഇന്ന് കൂടുതലും യുവജനങ്ങളായതു കൊണ്ടു തന്നെ അവർ കൂടുതൽ ക്യാമറ പിന്നെ നെറ്റ് വർക്ക് മുതലായ കാര്യങ്ങളെ കൂടുതലായിട്ടു നോക്കിയിട്ടാണ് ഫോൺ എടുക്കുന്നത് പുതുതായിട്ടുള്ള ഫോണുകളെല്ലാം ഫൈവ് ജി സപ്പോർട്ടിങ്ങ് വെച്ചാണ് എടുക്കുന്നതും നോക്കുന്നതൊക്കെ പിന്നെ ഫോ ഫോണുപയോഗം എല്ലാവരുടെയും എല്ലാവരുടെയും രീതിയിൽ വ്യത്യസ്തമാണ് സപ്പറേറ്റ് രീതിയിലാണ് എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നതു തന്നെ അതു കൊണ്ടു തന്നെ അതിന് ഓരോരുത്തർക്ക് ഓരോ ഉപയോഗമാണുള്ളത് അത് അവർ ആ ഉപയോഗത്തിൻ്റെ ഇതു കൂട്ട് കാര്യക്ഷമതയും അതിൻ്റേതായ രീതിയിൽ മാത്രമേ ഫോൺ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം ഇന്നു മാർക്കറ്റിൽ പലതരം ഫോൺ കമ്പനീസും ഫോണുകളും ഇന്നു ലഭ്യമായിട്ടുണ്ട് ഒരു കമ്പനിയുടെ തന്നെ വിവോയാണെങ്കിൽ അതിൻ്റെ തന്നെ പലതരം വെ വെറൈറ്റീസ് ഫോണുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഏത് ഏതു കമ്പനി എടുത്താലും അതിൻ്റെ തന്നെ ഇങ്ങനെ പലതരം ഫോണുകൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളതാണ് അതിൽ ഏതിനാണോ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നത് അതിന് അതിനാണ് ജനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ് മുൻഗണന കൊടുത്ത് എടുക്ക് എടുക്കാൻ ശ്രമിക്കുന്നത് ചെയ്യുന്നത് പിന്നെ ഇ എം ഐ പോലെയുള്ള സൗകര്യങ്ങളുള്ളതു കൊണ്ടു തന്നെ കൂടുതൽ ഫീച്ചറുകളുള്ള ഫോണുകളാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇന്നു മാർക്കറ്റിൽ ഉള്ള സാംസങ്ങിൻ്റെ ഫോണുകളാണ് കൂടുതലുപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റൊരഭിപ്രായം